ഞങ്ങളുടെ ഈ തൊട്ടടുത്ത ഒരു കൃഷിഭവനുണ്ട് ആ കൃഷിഭവനിൽ നല്ല ഒരു കൃഷിയും ഈ തൊട്ടടുത്ത് ഒരു കൃഷി ഓഫ് കൃഷി ഓഫീസർ വന്ന് നല്ല ഒരു കൃഷി ഓഫീസർ എത്തീട്ടുണ്ട് ആ കൃഷി ഓഫീസറെ ഏത് അവസരത്തിലും നമുക്ക് നല്ല ഉപദേശങ്ങൾ തരാനും എല്ലാ കാര്യത്തിനും ആ കൃഷി ഓഫീസർ യാതൊരു മടിയും ഇല്ലാതെ നമ്മളെ എല്ലാ കാര്യത്തിലും സജീവമായിട്ട് നമ്മളുടെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ കൃഷി ഓഫീസിൽ കൃഷി ഭവനിൽ ധാരാളം ചെടികളും അതായത് ബഡ് ചെടികളും അല്ലാത്തതും വിത്തുകളും പല പല ചെടികളുടെ ചെടികളുടെ കൂട്ടങ്ങൾ എല്ലാം നമുക്കുണ്ട് അതായത് ഓരോ ചെടികളുടേ ഓരോ ഗുണങ്ങളും അതിൻ്റെ ദൂഷ്യ ഇല്ല അതിൻ്റെ ഓ എല്ലാ കാര്യങ്ങളും സംരക്ഷിക്കുന്നതിനുള്ള കെ ഓ ആവശ്യങ്ങൾ എല്ലാ കൃഷി ഓഫീസ് പറഞ്ഞു തരും അതല്ലാ എങ്കിൽ ഈ കൃഷിഭവനിലെ കൃഷികൾ നോക്കുന്ന ആളും അതുപോലെ കൃഷിയെ കൂടുതൽ കൈകാര്യം ചെയ്ത കുറച്ച് മൂന്നാലാഞ്ച് ആൾക്കാരവിടെ കൃഷി നോക്കാനും അതിന് കൃ വെള്ളം അങ്ങനെ ഉള്ള ആൾക്കാരുണ്ട് അവരോട് ചോദിച്ചാലും അവർ കുറെയൊക്കെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരും പിന്നെ ഇപ്പോൾ പഴയ രീതിയനുസരിച്ച് നമ്മുടെ ഈ പ വീടുകളിലും ഒത്തിരി സ്ഥലങ്ങളും കാര്യ സൗകര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ കൃഷിഭവനിൽ നിന്ന് തന്നെ നമുക്ക് ഈ പത്തും ഇരുപത്തഞ്ചും ചാക്കുകളിൽ നിറച്ച് അതായത് ഏറ്റവും ചാക്കുകളുടെ അടിയിൽ കുറച്ച് തൊണ്ടും പിന്നെ കമ്പുകളും ഒക്കെ തൊണ്ടു വെച്ചു അല്ല കമ്പ് വെച്ചു അതിൻ്റെ മേളിൽ മണ്ണിട്ട് അതിൻ്റെ മേളിൽ തൊണ്ട് കമഴ്ത്തി അതിൻ്റെ മുകളിൽ മണ്ണുമിട്ട് വളവും മിക്സ് ചെയ്ത് നമുക്ക് ചാക്കുകളെ നമുക്ക് ഓരോ അതാ എത്ര ചാക്കുകൾ വേണോ അതനുസരിച്ച് നമുക്ക് ന്നു തരും അതിനകത്ത് വെക്കണ്ടിയ ചെടികളും ഓരോ ചെടികൾ ഏത് രീതിയിൽ വെക്കണം മണ്ണിൻ്റെ അളവും എല്ലാം നമ്മളെ കാണിച്ച് തരും അത് കഴിഞ്ഞ് വെച്ചു കഴിഞ്ഞാൽ അവ അതിന് വേണ്ട വളങ്ങളും വെള്ളവും ഒക്കെ ഒഴിക്കണ്ടിയെ ഓരോ ആവ നമ്മളെ കാണിച്ച് തരുകയും നമ്മൾക്ക് ആ ഒരു നല്ല ഒരു ഇതാണ് നമുക്ക് ചാക്കിനകത്ത് മണ്ണു നിറച്ച് അത് ചെയ്യുന്ന സംരംഭങ്ങളെ പിന്നെ നമ്മൾ വീടുകളിൽ കൊണ്ടുപോയി അത് സംരക്ഷിക്കുന്ന അധികം ചില ചെടികൾക്ക് വലിയ സൂര്യപ്രകാശം വേണ്ടതുണ്ട് സൂര്യപ്രകാശം കുറവ് സൗകര്യങ്ങൾ അതേ അവസ്ഥയിൽ വെക്കാൻ അത് അതൊന്ന് പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുന്ന കാര്യങ്ങളെ പിന്നെ നമ്മൾ വീടുകളിൽ തന്നെ ചെറിയ കമ്പോസ്റ്റ് അതായത് നമ്മൾ ചെറിയ ഈ ടാങ്ക് പോലെ കെട്ടീട്ട് അതിനകത്ത് നമ്മളെ വീട്ടിലെ വേസ്റ്റുകളെല്ലാം വാരിയിട്ട് നിറച്ച് അതൊരു കുറെ ദിവസങ്ങൾ കഴിയുമ്പോൾ അതെടുത്ത് പുറത്തിട്ടു ഉണക്കി അത് പൊടിച്ച് ഈ ചെടികൾക്കൊക്കെ ചേർക്കത്തക്കരീതികൾ ആവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് വേണ്ട വളങ്ങളും ഈ കൃഷി ഓഫീസിന്നു തന്നെ തരുന്നുണ്ട് അത് ഏത് സമയത്തും ഇടണമെന്നും എങ്ങനെ ചേർക്കണോന്നൊക്കെ അവർ മനസ്സിലാക്കി തരുന്നുണ്ട് പിന്നെ ഈ കൃഷി ചെടികൾ ഒരുവിധം വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ചില അവസരത്തിലെ ഈച്ചകളുടെയും അതുപോലെ ചില ചില ഉറുമ്പുകളുടെയും ശല്യങ്ങൾ ഉണ്ട് അതിനുവേണ്ടി ഉറുമ്പുകളുടെ ശല്യത്തി പ്രത്യേക ഒരു സൈസ്സ് പൗഡർ തരും അതുപോലെ ഈച്ച ശല്യത്തിൽ കുത്തിക്കളയാതിരിക്കാന് ഒരു മരുന്ന് തന്നു അത് സ്പ്രേ അടിച്ചത് അതിന് അടിച്ചു കളയാനുമൊക്കെയുള്ള അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരും കൃഷി ഓഫീസറുടെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പം ചെറിയായിട്ട് ഇപ്പം അഥവാ ഇനി കൃഷി ഓഫീസി ചെന്ന് ചോദിച്ചില്ലേലും ഈ കൃഷി ഓഫീസിന്നു ഒരു വാട്ട്സാപ്പ് ഗ്രൂപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് അതിലൂടി നമുക്ക് ഇവരുമായിട്ട് കോണ്ടാക്ട് അത് ആദ്യമായിട്ട് ഇവരിതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് ഓരോ ചെടികളിലെയും ഓരോ എങ്ങനെ ഏത് രീതിയിൽ പ്രവർത്തിക്കണമെന്നുള്ളത് അവർ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് ഇത് കൂടാതെ നമുക്ക് ഒരു ഒരു അഞ്ചെട്ട് പത്ത് പേര് കൂടി ഉള്ള ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് അപ്പം നമുക്ക് പലരുമായിട്ടും കോണ്ടാക്ട് ചെയ്ത് ഓരോ ചെടികളെപ്പറ്റിയുള്ള ഓരോ കണ്ടീഷെൻസും എന്തെങ്കിലും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പുകളൊന്നിച്ച് ചോദിക്കെം പറയേം ഒക്കെ ചെയ്യാനുള്ള ഒരു അവസരം നമുക്കിപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് അതൊരു നല്ലയവസ്ഥയാണ് അതായത് നമ്മൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ഈ അതെന്തുപറ്റി ഈ ചെടികൾ ഒരു കേടു കാണുന്നല്ലോ അല്ലെങ്കിൽ ഈ ചെടിയുടെ ബഡ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ഒരു ഉണങ്ങിയ അവസ്ഥ പോലെ അപ്പോൾ അവരെന്താണ് അവരി ഞങ്ങൾ ഈ ഗ്രൂപ്പുകളിൽ എല്ലാവരും കൂടെ ആലോചിച്ച് ഇതിനെ ഒരു അതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് പിന്നെ കൂടുതൽ ഓ ഒ പണ്ട് കാലങ്ങൾ തൊട്ടേ കൃഷിയോട് കൂടുതൽ പരിചയവും ഇതുമുള്ള പിന്നെ ആൾക്കാരുമായിട്ട് കൂടുതൽ സമയം ചിലവഴിച്ച് നമുക്ക് ഇതിന് പിന്നെ ചെടി നല്ല രീതിയിൽ കുറേക്കൂടി നല്ല രീതിയിൽ പ്രവർത്തിക്കാം പക്ഷേ ഈ പഴയ രീതിയിലുള്ള കൃഷിക്കാരുടെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഈ വളങ്ങളൊന്നും ആ അന്നത്തെ രീതിയിലുള്ള വളങ്ങളല്ല അന്നൊക്കെ ചാണകപ്പൊടിയും ആട്ടിൻ ആ ആ ആട്ടി കാ ആട്ടിൻ്റെ പോ ആ കാട്ടവും ഒക്കെ ഇട്ടാണ് നമ്മൾ അന്നൊക്കെ ചെടികളും അതുമിതൊക്കെ സംരക്ഷിക്കുക ഇപ്പം അതൊന്നും അല്ലല്ലാ അതുകൂടാതെ പല പല കെ വേസ്റ്റ്കൾ ഉപയോഗിച്ച് കെമിക്കല് ഒക്കെ ഉപയോഗിച്ചാണ് അപ്പോൾ അതേ രീതിയിൽ പ്രവർത്തിക്കുന്ന ആ വ്യക്തികളുടെ ഉപദേശങ്ങൾ തേടി തേടി നമ്മൾ പിന്നെ ഒരു വലിയ വലിപ്പം എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് അവരുടെയൊക്കെ ഉപദേശത്തിലൂടെ നമുക്ക് പോകാൻ സാധിക്കും പക്ഷേ ചെറിയ രീതിയിൽ നട്ട് വളർത്തി അത് ഒരു ചുവട് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ഈ കൃഷിഭവനിലെ തന്നെ ഉപദേശം തേടേണ്ടി വരും അതായത് അവരുടെ തരുന്ന ചെടികളാണല്ലോ അപ്പോൾ അവരുടെ ആ ഉപദേശത്തിലൂടെ പോകുന്നതായിരിക്കും നമുക്ക് നല്ലത് പിന്നെ നമുക്ക് കൃഷി പിന്നെ അതുപോലെ നമുക്ക് ഒരുപാട് ഇതി വലിയ വാ വാ കാ വലിയ കാട് പോ പിടിച്ച് വളർത്തുന്ന രീതിയിലുള്ള ചെടികൾ നമുക്ക് കുറെ കഴിയുമ്പോളതിൻ്റെ എല്ലാം ശിഖരങ്ങളെല്ലാം വെട്ടി വെട്ടി ഒരേ ലെവലിൽ ആക്കാനും അവരോട് ഇത്ര മാസം കഴിയുമ്പോൾ അത് ലെവെലാക്കി കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ വളർന്നുകൊള്ളും അങ്ങനെയൊക്കെയുള്ള ഉപദേശങ്ങളൊക്കെ ഞങ്ങളെ ഈ കൃഷി ഓഫീസി തന്നെ ചെന്ന് ചോദിച്ചാണ് മനസ്സിലാക്കുന്നത് പിന്നെ ഓരോ രണ്ടുമാസങ്ങളൊക്കെ കൂടി ചെല്ലുമ്പഴത്തേക്കിന് വളങ്ങൾ വാങ്ങി വളം ഒക്കെ വാങ്ങി കൊണ്ടുവരികയും വളങ്ങളിടണ്ടിയ ഓരോ ക്ലാസുകളിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് കൂടി ഒരു പത്ത് പതിനഞ്ച് പേർ കൂടിയാണ് ഈ ക്ലാസുകളിലൊക്കെ അറ്റെൻഡ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് സൗകര്യം ഉണ്ടാക്കി തന്നിരിക്കുന്നത് പിന്നെ ഓ പിന്നെ നമ്മുടെ ചെടികൾക്ക് വേണ്ട വെള്ളം അത് നമ്മൾ രാവിലെ ഒഴിച്ച് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് വൈകിട്ടും നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഒഴിക്കുന്നത് നല്ലതായിരിക്കും മെയിനായിട്ട് നല്ല സൂര്യപ്രകാശം ഉള്ള സ്ഥലങ്ങളിലാണ് നമ്മളീ ചെടി വെക്കാൻ വെക്കുന്നത് ഏറ്റവും നല്ലത്